ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നം എന്നു പറയുന്നത് കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് എന്നാ മഴ കുറയുന്നു ചിലപ്പോൾ മല ചില അവസരങ്ങളിൽ മഴ ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാകുന്നു അപ്പം ഈ വെള്ളത്തിൻ്റെ അധികം മഴ കൂടുതലാകുമ്പോൾ എന്താ അവിടെ എന്താണ് വെള്ളപ്പൊക്കമുണ്ടാകുന്നു കൃഷിയെല്ലാം നശിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ രോഗങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു മറ്റൊരു കാര്യം എന്നു പറയുന്നത് ചില വർഷങ്ങളിൽ മഴ തീരെ ലഭിക്കാതെ ആകുന്നു വേനൽ കൂടുന്നു അപ്പോൾ വെള്ളം വറ്റുന്നു അപ്പം കൃഷി മുഴുവനും ഉണങ്ങി നശിക്കുന്നു പിന്നെ ആദ്യം മുതലുണ്ടാക്കേണ്ടി വരുന്നു അതേറ്റവും വലിയ പ്രശ്നങ്ങൾ എന്നു പറയുന്നത് എന്താണ് ഈ കാലാവസ്ഥയിൽ അധികമായിട്ട് വരുന്ന ചൂട് ഒന്നിങ്കിൽ തണുപ്പ് അധികമായിട്ട് ചില പ്രത്യേക പ്രദേശങ്ങളിൽ സാധാരണ അവിടെ ഉണ്ടാകേണ്ട കാലാവസ്ഥയിൽനിന്ന് വ്യത്യസ്തമായി കൂടുതലായ അധിയായ തണുപ്പ് സഹിക്കാൻ പറ്റാത്തപോലെ തണുപ്പും ശാരീരിക പ്രശ്നങ്ങളും അതിലേക്കത് നയിക്കുന്നു അതുപോലെതന്നെ വളരെ വലിയ ചൂട് എല്ലാവർക്കൊന്നും എപ്പോഴും ഏ സി റൂമിലിരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ അപ്പം താങ്ങാൻ പറ്റാത്തൊരു മനുഷ്യന് നോർമലി ഫേസ് ചെയ്യാൻ പറ്റാത്ത അധികമായിട്ടുള്ള വേനലും ചൂടും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കുന്നു കാരണം പറമ്പിൽ പണിയുന്ന മറ്റ് സ്ഥലങ്ങളിലും കൃഷിയിടങ്ങളിലും മറ്റു റോഡുകളിലും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ പുറമെ ഭൂമിയിൽ നേരിട്ട് സൂര്യപ്രകാശമേറ്റ രീതിയിൽ നിന്ന് പണിയേണ്ടി വരുന്ന വ്യക്തികളും സാഹചര്യങ്ങളും ഉണ്ടവിടെ നിൽക്കുന്ന മനുഷ്യരൊക്കെ വളരെ കഷ്ടപ്പെടുന്നത് വളരെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നതായിട്ട് ഈ വലിയ വേനൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്നുണ്ട്

തണുപ്പ് വളരെ അധികമാണ് മഴ ഇതിനെ ഇത് ഇതിന് ഓപ്പോസിറ്റായിട്ട് സംഭവിക്കാറുണ്ട് വേനൽ കുറയുമ്പോൾ ചില വർഷങ്ങളിൽ അധികമായ മഴ കുറച്ച് നാളുകൾ കൊണ്ട് ഭൂമിക്ക് സ്വീകരിക്കാൻ പറ്റുന്നതിലും അധികമായിട്ടുള്ള മഴയുണ്ടാകുമ്പോൾ അത് മണ്ണൊലിച്ചിൽ പിന്നെ മറ്റു കാര്യങ്ങൾക്കും കാരണമാവുകയും കൃഷി മുഴുവനും നശിക്കുകയും ഭൂപ്രദേശം തന്നെ അതിൻ്റെ അവസ്ഥ തന്നെ ഇല്ലാതാവുകയും മാറിപ്പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ലാൻഡ് സ്ലൈഡ് അതായത് മണ്ണൊലിപ്പ് വളരെ ശക്തമായിട്ടുണ്ടാകുന്നു ഒരുപാട് പ്രദേശങ്ങൾക്ക് വളരെ പ്രശ്നങ്ങളുണ്ടാവുകയും ഒരുപാട് വീടുകളും ഗ്രാമങ്ങളുമൊക്കെ നശിക്കാനും ഈ അധികമായ മഴയും ചിലപ്പോൾ കാരണമായിട്ട് മാറാറുണ്ട് പണ്ടുണ്ടായിരുന്ന ഒരുപാട് നദികൾ നമുക്ക് നഷ്ടമായി ആ നദികളിൽ നിന്ന് ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊന്നും ഇപ്പോൾ അപ്രത്യക്ഷമായിട്ടിരിക്കുകയാണ് നദികളൊക്കെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞത് കാരണം വറ്റി വരളുകയും ആ നദികളിലൊക്കെ പലപ്പോഴും മനുഷ്യർ കൃഷിയായിട്ട് ആ പ്രദേശങ്ങളൊക്കെ വെറുതെ കെടക്കുന്നതു കാരണം കൃഷിക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി കാടുകളൊക്കെ വെട്ടി നിരത്തുകയെന്നു പറയുന്നത് സ്വാഭാവിക പ്രവണതയായിട്ട് മാറി ഒരുപാട് കാടുകൾ വെട്ടി നിരത്തി അപ്പം തീയിട്ടത് നശിപ്പിക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പം കാടുകൾ നശിച്ചതുകൊണ്ട് ഈ ഒരു നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് അതിയായ ചൂടിലേക്കൊക്കെ ഈ കാടുകൾ വെട്ടി നശിപ്പിക്കുന്നതുകൊണ്ടൊക്കെ നമ്മുടെ നാട് മാറിയിട്ടുണ്ട് വളരെ സ്വസ്തമായ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ തണുപ്പുള്ള ഒരു സാഹചര്യത്തിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന നാളുകളൊക്കെ ഇപ്പം മൺമറഞ്ഞു പോയി നമുക്കായ ആ നാളുകളൊക്കെ ഇല്ലെന്നായി കാരണം നമ്മുടെ മലകൾ നിരത്തുന്നതും കുന്നുകളൊക്കെ വെട്ടി നിരത്തുന്നതും നദികളൊക്കെ വറ്റിപ്പോയതും കാടുകൾ വെട്ടി മാറ്റുന്നതൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട് നമ്മുടെ കൃഷിയിടങ്ങളിൽ കൃഷി ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്ന ഓരോ ധാന്യ വിളകളൊക്കെ നട്ടുപിടിപ്പിച്ച് അതൊക്കെ ഫലമാകാറാകുമ്പോഴത്തേക്കും അപ്രതീക്ഷിതമായിട്ട് വരുന്ന വേനൽ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് അധികമായി വരുന്ന കൊടും മഴ അതൊക്കെ എന്താണീ കൃഷി മുഴുവനും നശിക്കാൻ കാരണമായിട്ടുണ്ട് അങ്ങനെ സകല കൃഷിയും നശിച്ച് കടമൊക്കെ കയറി നമ്മുടെ ആളുകൾ നാട്ടിലുള്ള ആൾക്കാർക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെതന്നെ ഒരു കാര്യമാണ് മണ്ണിൻ്റെ പിന്നെ ഫലസംഭൂയിഷ്ഠി കുറഞ്ഞുയെന്നുള്ളത് നേരത്തെ എന്ത് കുഴിച്ചുവെച്ചാലും നല്ലൊരു ഫലം നൽകിയിരുന്ന മണ്ണ് ഇന്ന് ഈ രാസവളങ്ങളുടെ ഉപയോഗവും പിന്നെ ഈ മറ്റു പല പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൊണ്ടും മണ്ണിൽ നല്ല ഫലവില്ലാതെ ജൈവവളങ്ങളൊക്കെ ഉപയോഗിക്കാൻ പെട്ടെന്ന് വിളവ് കിട്ടാൻ വേണ്ടി മനുഷ്യൻ തന്നെ ഈ മറ്റു വളങ്ങളും രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചതുകൊണ്ടാണ് ഇതെല്ലാം നഷ്ടമായത് മണ്ണിൽ നിന്ന് എത്രയധികം പണിയെടുത്താലും എത്രയധികം എന്തെല്ലാമിട്ടാലും നല്ലയൊരു വിളവ് ലഭിക്കാതെ വലിയ നഷ്ടത്തിലേക്കും നാശത്തിലേക്കും നാട് പോകുന്നുണ്ട് നമ്മുടെ പ്രവർത്തികളൊക്കെ തന്നെയാണ് ഇതിന് കാരണങ്ങൾ ഈ മാറ്റം നമ്മൾ വളർന്നുവരുന്ന ഓരോ നാളുകളിലും നമ്മൾ ഈ വലിയ മാറ്റം ഈ ഭൂമിയിൽ കാണുന്നുണ്ട് നമ്മൾ കുട്ടിയായിരുന്നപ്പോഴുണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന നല്ല എന്താണ് എ സി പോലെയുള്ള കാലാവസ്ഥയും നല്ല തണുപ്പുള്ള കാലാവസ്ഥയും എവിടെ എപ്പോൾ നോക്കിയാലും നല്ല ഉറവകളൊക്കെ ലഭിക്കുന്ന നല്ല ജലസമൃദ്ദമായ അരുവികളും എല്ലാമുണ്ടായിരുന്നു ഇപ്പം നദികളുണ്ട് നദികളൊക്കെ മാലിന്യങ്ങൾ കൊണ്ടുനിറഞ്ഞു നദികളിൽ പലപ്പോഴും വെള്ളത്തിന് പകരം മാലിന്യമാണ് ഒഴുകുന്നത് തോന്നിപ്പോകും അതുപോലെയായി മാറിയിരിക്കുന്നു നമ്മുടെ നദികൾ കാടുകൾ എല്ലാവർക്കും സന്തോഷം പകരുന്ന കാടുകളും അവിടുത്തെ കുളിർമ്മയും ഒക്കെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഒരുപാട് ജീവികൾ അന്യം നിന്നുപോയി ഒരുപാട് ജീവികൾക്ക് അതുങ്ങളുടെ വീടുകളുമെല്ലാം നഷ്ടമായി പിന്നെ കാട്ടുതീപോൽ മൂലം ഒരുപാട് മൃഗങ്ങൾ ചത്തുപോകാനൊക്കെ ഇടയായി പിന്നെ മലകളൊക്കെ നിരത്തി കുന്നുകളൊക്കെ നിരത്തി കെട്ടിടങ്ങളൊക്കെ വെക്കുന്നതുകൊണ്ട് നമ്മുടെ സാധാരണ സാഹചര്യങ്ങളിൽ വലിയ വലിയ ചൂടും വലിയ അസ്വസ്ഥതകളും വലിയ രോഗങ്ങളുമൊക്കെ അത് കാരണം അതിനൊക്കെ കാരണമായിട്ടുണ്ട് കടലിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് കടലിങ്ങനെ കയറിക്കയറി ഭൂമിയിലെ കടലോര പ്രദേശങ്ങളൊക്കെ എടുക്കുന്നത് ഈ എന്താണ് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാരണമായിട്ടുണ്ട് ചൂട് കൂടുന്നതനുസരിച്ച് നമ്മുടെ മഞ്ഞുമലകളെല്ലാം ഉരുകി കടലിലേക്ക് വരികയും കടൽ കയറിക്കയറി നമ്മുടെ തീരപ്രദേശങ്ങളൊക്കെ കടലിൽ പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കടൽ വലുതായിക്കൊണ്ടിരിക്കുന്നു മഞ്ഞ് മലകളെല്ലാം ഉരുകി ആ പ്രദേശങ്ങളൊക്കെ മഞ്ഞ് മലകളൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് കാരണമാവുന്നത് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാട് നമ്മുടെ പ്രവർത്തികൾ മൂലവും മറ്റ് പലവിധ ഉപവസ്തുക്കളുടെ ഉപയോഗവും ഒക്കെ മൂലമാണ് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാകുന്നത് ഏറ്റവും കൂടുതലായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ പണ്ടുണ്ടായിരുന്ന നല്ല കാലാവസ്ഥ ആ ഒരു കാലാവസ്ഥ നമുക്ക് നഷ്ടമായി എന്നുള്ളതാണ് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധം ഏതൊക്കെ എന്തൊക്ക സാഹചര്യങ്ങൾ അത്യാധുനിക സൗകര്യങ്ങൾ നമ്മളുപയോഗിച്ചാലും നമുക്ക് പണ്ടുണ്ടായിരുന്ന ഏറ്റവും സ്വസ്ഥവും ശാന്തവുമായ ഒരന്തരീക്ഷവും കാലാവസ്ഥയും കുളിർമ്മയേറിയ കാറ്റും മാലിന്യങ്ങളും വിഷവും ഒന്നുമില്ലാത്ത നല്ല കാറ്റും സാഹചര്യങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടു അതാണ് ഏറ്റവും വലിയ ഇന്നത്തെ നാട് നേരിടുന്ന പ്രശ്നങ്ങൾ പുറത്തിറങ്ങി ഒന്ന് നിൽക്കാനോ എന്തെങ്കിലും ജോലി ചെയ്യാനോ ഒന്ന് യാത്ര ചെയ്യാനോ പറ്റാത്ത വിധം നമ്മുടെ കാലാവസ്ഥയിൽ വലിയ മാറ്റം കാലാവസ്ഥയിൽ വലിയ ചൂട് ചൂട് വന്ന് നമുക്ക് അതിനെ എന്താണ് വളരെ അധികമായിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ മാറ്റം വന്നിരിക്കുന്നു ഇനി മഴ പെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തത് നമ്മുടെ കൃഷിയും സകല സാഹചര്യങ്ങളും നശിച്ചു വെള്ളത്തിലായി വെള്ളപ്പൊക്കമുണ്ടാകുന്ന രീതിയിലുള്ള വലിയ മഴ അത് മണ്ണൊലിച്ചിലിന് അല്ലെങ്കിൽ മറ്റ് പിന്നെ ഭൂകമ്പത്തിന് മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ഒരു മല തന്നെ ഒലിച്ച് ഒരു നാട് തന്നെ നശിക്കാനതൊക്കെ കാരണമാവുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ പരിസ്ഥിതിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്നും നമ്മുടെ ഭൂപ്രകൃതിയിൽ ഈ ഭൂപ്രകൃതിയിൽ ഈവിധ മാറ്റങ്ങളൊക്കെ ഉണ്ടായതെന്നും നമുക്ക് കാണാൻ പറ്റും ഈ കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണേറ്റവും വലിയ മാറ്റം അതുപോലെ നമ്മുടെ ഭൂപ്രദേശം പ്രദേശങ്ങളിൽ ഭൂപ്രകൃതിയിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങളൊക്കെയാണ് ഈ കാലാവസ്ഥയിൽ ഇത്ര വലിയ മാറ്റമുണ്ടാകാനും കാരണമെന്നും എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മുടെ മഞ്ഞുമലകളെല്ലാം ഉരുകി കടലെല്ലാം കരയിലേക്ക് കയറി വരുന്നു വലിയ താങ്ങനാവാത്ത വിധം ചൂട് അതുപോലെതന്നെ ഈ നാട്ടിലില്ലെങ്കിലും ഇന്ത്യയുടെ മറ്റു സ്ഥലങ്ങളിൽ പുകകൊണ്ട് പുക നിറഞ്ഞ ഒരു അന്തരീക്ഷം പരസ്പരം വ്യക്തികളെ കാണാനാകാത്തതുപോലെ പുക നിറഞ്ഞ മാലിന്യം നിറഞ്ഞ ഒരന്തരീക്ഷം നല്ല ഓക്സിജൻ കിട്ടാതെ അസ്വസ്ഥമായിരിക്കുന്ന ഒരു ജനത്തേയും നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും ഇതൊക്കെയാണ് നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇന്ന് ഇന്ത്യയിലുള്ളത്